എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് മാട്രസ് ആണ് ഞാന് ഇപ്പോൾ രണ്ടുമൂന്നു ദിവസമായിട്ടെ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഇന്നാണ് അത് ഡെലിവറി ആയത് ഞാൻ മറ്റെ സ്പ്രിങ് മാട്രസ് ആണ് മേടിച്ചത് അപ്പം അത്യാവശ്യം അതായത് ഞങ്ങൾ ഫാമിലി കോട്ട് ബെഡ് ആണ് മേടിച്ചത് കാരണം ഞങ്ങൾ മൂന്നുപേര് ഉള്ളതുകൊണ്ട് കൊച്ചിന് കിടക്കാൻ ഒരുപാട് സ്ഥലം വേണം അ പ്പൊന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചു കഴിഞ്ഞപ്പോൾ അത് വളരെ ഉപകാരമായി നല്ല അടിപൊളി പിന്നെ ബെഡാണ് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല മേടിക്കുമ്പോൾ ഇത്ര അടിപൊളി ആകുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തു നോക്കിയന്നേയുള്ളൂ അപ്പം ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടല്ലോ അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചാണ് മേടിച്ചത് ഇവിടെ വന്നപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് കിടക്കാൻ ഒക്കെ നല്ല സുഖമാണ് ഒരുപാട് സ്പേസ് ഉണ്ട് കുട്ടിക്കാണെങ്കിലും കിടക്കാൻ നല്ല സുഖമുണ്ട് മുകളിൽ അതായത് ചകിരിൻ്റെ അല്ല വരുന്നത് സ്പോഞ്ച് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിടക്കാൻ നല്ല സുഖമാണ് നമുക്ക് അങ്ങനെ ചൂട് കാര്യങ്ങൾ ഒന്നും അ അടിയിൽ നിന്ന് അടിക്കില്ല അതിൻ്റെ അടി ഭാഗത്താണ് ചകിരി മുകൾ ഭാഗത്ത് സ്പോഞ്ച് ആണ് അതുകൊണ്ടുതന്നെ അത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത്